ഏതെങ്കിലും വാദ്യോപകരണം വായിക്കുമോയെന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ ഇതുവരെ വായിച്ചിട്ടുമില്ല അങ്ങനെ വായിക്കാൻ അറിഞ്ഞൂകൂട പക്ഷേ ഇപ്പം വാദ്യോപകരണം ചെണ്ടയായാലോ മദ്ദളമായാലും ഗിത്താറായാലോ എല്ലാം ഇങ്ങനെ വായിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനും എല്ലാം ഇഷ്ടമാണ് ആ പക്ഷേങ്കിൽ വായിക്കാനറിയില്ല ആ പിന്നെ ഈ വാദ്യോപകരണങ്ങളിൽ തീവ്രമായിട്ട് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓടക്കുഴലാണ് ഓടക്കുഴൽ വായിക്കുന്ന കാണുമ്പോൾ വേറെ ആൾക്കാർ വായിക്കുന്ന കാണുമ്പോൾ അത് വായിക്കണമെന്ന് തോന്നലുണ്ട് ഭയങ്കര ഇഷ്ടാണ് ഓടക്കുഴൽ വായിക്കുന്ന കാണാൻ നമ്മൾ ഓരോ പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ചിട്ടെല്ലാം ഓടക്കുഴൽ വായിക്കുന്നതാണ് വേറെത്തന്നെ ഒരു രസമാണ് അപ്പം അത് കാണുമ്പം വായിക്കണമെന്ന് തോന്നലുണ്ട് പിന്ന ഇപ്പം ചെണ്ടയായാലും മദ്ദളമായാലും എല്ലാം അങ്ങനത്തതുതന്നെയാണ് വാദ്യോപകരണങ്ങൾ എല്ലാം എന്താ പറയുക നല്ല രസമാണ് കാണാനും അത് കേൾക്കാനും എല്ലാം പക്ഷേ ഓടക്കുഴലിനോട് കുറച്ച്കൂടി വായിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കുറച്ച്കൂടി കൂടുതലാണ്